ഹലോ ആ ചേട്ടാ ഞാനേ നേരത്തെ ചേട്ടന്റെ വണ്ടിയിലുണ്ടായിരുന്ന പെണ്കുട്ടിയല്ലേ അ ആ കുട്ടിയാട്ടോ ഞാനിപ്പം വിളിച്ചത് ചേട്ടനോട് ഒരു കാര്യം പറയാനാ സത്യം പറഞ്ഞാൽ കാര്യംന്ന് പറഞ്ഞാൽ ഒരു നന്ദി പറച്ചിൽ തന്നെയാണ് ഇത് ഞാന് ചേട്ടനോട് പറഞ്ഞില്ലെങ്കില് എനിക്കിത് മനസ്സിലിങ്ങനെ ഇട്ടോണ്ട് നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടന്നെയാ അതുകൊണ്ടാണ് ഇത്ര രാതിയായിട്ട് പോലും ഞാന് ചേട്ടനെ വിളിച്ചത് വിളിച്ചത് ബുദ്ധിമുട്ടായെങ്കില് സോറി ചേട്ടനൊരു കാര്യറിയുവോ എല്ലാ പെണ്കുട്ടികളെ പോലെയും രാത്രി യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാനും പക്ഷെ നമ്മുടെ ഈയൊരു സമൂഹത്തിൽ ഇപ്പം പെണ്കുട്ടികളനുഭവിക്കുന്ന ദുരരുഭ ദുരനുഭവങ്ങള് ചേട്ടനും വാര്ത്തയിലൂടേം പത്രത്തിലൂടേം ഒക്കെ കാണുന്നതാണല്ലോ അതെല്ലാമെന്റെ അച്ഛനും അമ്മയും കാണുന്നുമുണ്ട് അങ്ങനെ കാണുന്നോണ്ടന്നെ അവര്ക്കെന്നെ ഒറ്റയ്ക്ക് അതിപ്പം പകലെന്നില്ല രാതിയെന്നില്ല പുറത്തേക്ക് വിടുന്നത് കുറച്ച് വിഷമം തന്നെയാണ് ഞാനെവിടേങ്കിലും പുറത്ത് പോവാന് എറങ്ങുമ്പളേക്കും അവരുടെ മനസ്സില് ഭയങ്കര ആദിയാ ഞാൻ പോയിട്ട് തിരിച്ച് വരുന്നത് വരെ എനിക്കെന്തെങ്കിലും പറ്റുവോന്ന് അങ്ങനെയുള്ളൊരു കുട്ടി ഇന്ന് രാത്രി ഇങ്ങനെ ഒറ്റക്ക് വന്നത് എന്തുകൊണ്ടാണെന്നായിരിക്കില്ലെ ചേട്ടന് ആലോചിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഇന്ന് ജോലി കഴിഞ്ഞെറങ്ങിയപ്പോൾ ഞാന് കുറച്ചൊന്ന് ലേറ്റായി ലേറ്റെന്ന് പറഞ്ഞ് എന്റെ വീട്ടിലേക്കുള്ള ലാസ്റ്റ് ബസ്സ് ഞാന് മിസ് ചെയ്തു എന്ന് തന്നെ പറയാം അങ്ങനെ ഞാനെ വീട്ടിലെക്കിതൊന്ന് വിളിച്ച് പറഞ്ഞു അവര്ക്കാണെങ്കിലോ ടെന്ഷനടിച്ച് ടെന്ഷനടിച്ച് വേറെ നിവര്ത്തിയില്ലായെന്ന് അറെക്കും എന്റെ വീട്ടിലാണെങ്കിലോ അച്ഛനും ചേട്ടനും ഇല്ല ഉണ്ടായിരുന്നെങ്കില് അവരെ പറഞ്ഞ് വിട്ടേനെ എന്നെ അവിടെന്ന് കൊണ്ട്വരാനാട്ട് പക്ഷേ എന്റെ നിര്ഭാഗ്യംന്ന്ത എന്ന് തന്നെ പറയണം എന്റെ വീട്ടിലിന്ന് കൊണ്ട്വാരാനും കൂട്ടിക്കൊണ്ട് പോകുവാനും എന്റെ അച്ഛനുവില്ല ചേട്ടനുവില്ല അങ്ങനെ ആദി പിടിച്ചിരിക്കുമ്പോൾ ഇനി എന്തും വന്നോട്ടേയെന്ന് പറഞ്ഞിട്ടാണ് ഞാന് ചേട്ടന്റെയടുത്തേക്ക് വന്നത് തന്നെ ഒരു ടാക്സി വിളിച്ച് വരാന് എന്റെ അമ്മ പറഞ്ഞപ്പൊഴും എനിക്കറിയാം അമ്മക്ക് നല്ല ടെന്ഷന്ണ്ട് ഇപ്പോഴും നമ്മൾ വാര്ത്തയിലക്കെ കാണുന്നതാണല്ലൊ ചേട്ടനെ കുറ്റം പറയുന്നതല്ല കേട്ടോ ടാക്സിക്കാർ തന്നെ എത്ര മോശമായിട്ടാണ് സ്ത്രീകളോട് പെരുമാറുന്നതെന്ന് അങ്ങനെ ആദി മനസ്സില് വെച്ചിട്ട് തന്നെയാണ് ഞാനും വന്നത് കാരണം ചേട്ടനേ എനിക്ക് മുന്പരിചയമില്ല ചേട്ടനെന്നെയും മുന്പരിചയമില്ല അങ്ങനെ ഞാന് കയറിയപ്പൊത്തന്നെ ചേട്ടന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും കയറിയൊടനന്നെ എന്റെ അമ്മയെ വിളിച്ചോണ്ടിരിക്കുന്നത് അമ്മ പറഞ്ഞ ഐഡിയാട്ടോ കയറിയൊടനെ വീട്ടിലെത്തണ വരെ അമ്മേനെ കോള് ചെയ്തോണ്ടിരിക്കാന് വേറെ ആരായിരുന്നെങ്കിലും ഞാന് പറഞ്ഞേനേ എന്റെ നിര്ഭാഗ്യമെന്ന് പക്ഷേ ചേട്ടനായത് കൊണ്ട് ഞാന് പറയത്തില്ല എന്തുകൊണ്ടോ നിര്ഭാഗ്യമെന്ന് പറയാന് എനിക്ക് തോന്നുന്നതുവില്ല കയറി കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞപ്പത്തന്നെ സ്ര ചേട്ടന് ശ്രദ്ധിച്ച് കാണുവല്ലോ ഞാന് കോള് കട്ട് ചെയ്തത് അത് വേറൊന്നും കൊണ്ടല്ല എന്റെ ഫോണിന്റെ ചാര്ജ്ജ് കഴിഞ്ഞതാ പക്ഷേ ഞാന് പറഞ്ഞത് ഞാന് സോമനസ്സാലെ കോള് കട്ട് ചെയ്തു എന്നല്ലെ ചേട്ടന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളു പിന്നെ ചേട്ടനെന്നോട് എന്റെ മുഖത്തെ പേടിയെല്ലാം കണ്ടിട്ട് തന്നെയാണ് എന്ന് തോന്നുന്നു ആ സമയത്ത് ഞാനങ്ങനെ ചിന്തിച്ചില്ല കേട്ടോ പക്ഷേ ഇപ്പം ഞാന് ആലോചിക്കുമ്പോള് എനിക്ക് തോന്നുന്നത് ചേട്ടന് എന്റെ അപ്പോഴത്തെ ഒരു പേടി കണ്ടിട്ട് തന്നെയാണ് എന്നോട് അങ്ങനെയക്കെ സംസാരിച്ചത് എന്ന് തന്നെയാണ് ചേട്ടന് ചേട്ടന്റെ വീട്ടിലെ കാര്യങ്ങളും ചേട്ടന്റെ ഭാര്യയെ പറ്റീം ചേട്ടന്റെ രണ്ട് മക്കളെ പറ്റീം എന്റെ പ്രായത്തിലുള്ള ആ കുട്ടിനെ കാണാന് ഞാനൊരു ദിവസം വരാട്ടൊ അവരെപ്പറ്റിയക്കെ പറഞ്ഞപ്പോൾ എന്താന്നറിയില്ല മനസ്സിനൊരു കുളിര്മ്മയാണ് സത്യം പറഞ്ഞാല് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പേടി അത് കുറച്ച് കുറഞ്ഞൂ എന്ന് തന്നെ പറയാം അങ്ങനെ ചേട്ടനെന്റെ വീടെത്തണ വരെ ചേട്ടന്റെ ജീവിതത്തെപ്പറ്റീം വീടിനെപ്പറ്റീം ജോലിയെപ്പറ്റിയക്കെ പറഞ്ഞ് ഞാന് എന്നെ പറ്റീം പറഞ്ഞപ്പോൾ നമ്മളൊന്നും കൂടി കംഫേട്ടബിളായില്ലെ അപ്പത്തന്നെ എന്റെ പേടി മുക്കാൽ ഭാഗവും പോയി പക്ഷേ എന്റെ അമ്മയോടിതൊന്നും എനിക്ക് പറയാന് നിവര്ത്തിയില്ലല്ലൊ ഞാനെത്തണ വരെ എന്റമ്മ ആദിപിടിച്ചാദിപിടിച്ചിരിക്കുവായിരുന്നു പക്ഷേ ഞാനെത്തി കഴിഞ്ഞപ്പോൾ എന്റമ്മേടെ മുഖത്തൊരാശ്വാസം അത് ചേട്ടനും ശ്രദ്ധിച്ച് കാണും പക്ഷേ അമ്മയോട് ഈ കാര്യങ്ങളക്കെ പറഞ്ഞപ്പോൾ അമ്മ തന്നെയാണ് പറഞ്ഞെ ഇനി ഒട്ടും വൈകിപ്പിക്കണ്ട ചേട്ടനെ വിളിച്ച് ഇതക്കെ പറഞ്ഞ് ഒരു നന്ദി എന്തായാലും പറയണംന്ന് സത്യം പറഞ്ഞാൽ ഞാൻ എനിയ്ക്കവസരം കിട്ടുവാണെങ്കിൽ ഞാന് പറയും ഈ നാട്ടിലെ എല്ലാവരും ചേട്ടനെ കണ്ട് പഠിക്കണമെന്ന് ഒരു മുന്പരിചയം ഇല്ലാത്ത ഒരു കുട്ടി ആ കുട്ടീനെ ഏറ്റവും സുരക്ഷിതമായിത്തന്നെ സ്വന്തം വീട്ടിലേക്ക് അതും രാത്രി എത്തിച്ചുകൊടുത്ത ചേട്ടനോട് ഹൃദയത്തിന്റെ ഭാഷയില് ഞാന് നന്ദി പറയുന്നു